ഞങ്ങളുടെ പ്രദേശത്തെ എം പി അഡ്വക്കേറ്റ് ഡീൻ കുരിയാക്കോസാണ് അദ്ദേഹം ഞങ്ങളുടെ ഈ നാടിന് വേണ്ടി വളരെയേറെ കാര്യങ്ങള് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞങ്ങളൊട്ടും വികസനമില്ലാതെ കിടന്നിരുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് റോഡ് കാര്യങ്ങള് ഒക്കെ അങ്ങനെയൊക്കെയുള്ള പ്രദേശമായിരുന്നു ഞങ്ങളുടെ പ്രദേശം റോഡൊന്നും അങ്ങനെ വികസിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അദ്ദേഹം പറ്റുന്ന അദ്ദേഹം ഞങ്ങള്ക്ക് റോഡ് പണിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുതന്നതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്കും നല്ല നല്ല റോഡുകളായി അപ്പോൾ ഒത്തിരിയേറെ ജനങ്ങൾക്ക് സൗകര്യങ്ങള് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങള് വളരെ കുറവായിരുന്നു എന്നാല് ഈ റോഡ് വികസനത്തിലൂടെ റോഡ് വികസനത്തിലൂടെ വളരെയേറെ റോഡ് വികസനത്തിലൂടെ ജനങ്ങൾക്ക് ഒത്തിരിയേറെ ജീവിത സാഹചര്യങ്ങള് അവർക്ക് മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിച്ചു ഇപ്പോള് കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ടാണെങ്കിലും എല്ലാം എവിടെ വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് വാഹന സൗകര്യമുണ്ടാകുന്നു എവിടെ വേണമെങ്കിലും വാഹനങ്ങൾ വരുവാനായിട്ടുള്ള വിധത്തിൽ റോഡ് വരുന്നു അതുപോലെത്തന്നെ ഓരോ ഓരോ ചെറിയ സ്ഥലങ്ങളിൽ പോലും ജനങ്ങള് തിങ്ങിയൊക്കെ പാർക്കുന്ന ചെറിയ ഇടങ്ങളിലേക്ക് പോലും ചെറിയ റോഡുകള് റോഡുകള് കാര്യങ്ങള് എല്ലാം വന്നതിലൂടെ ജനങ്ങളുടെ ജീവിത ജീവിതചര്യയ്ക്ക് തന്നെ മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകുവാനായിട്ടുള്ള ഈ ഗതാഗതമാർഗ്ഗം ഇത്രയും വന്നതോടുകൂടി റോഡ് സൗകര്യം ഇത്രയും വന്നതോടുകൂടി ജനങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകുവാനായിട്ടുള്ള വലിയ ഒരു സൗകര്യം സൗകര്യമായിട്ടുണ്ട് നല്ല റബ്ബറൈസ്ഡ് റോഡുകളെല്ലാം ഇപ്പോൾ ഇവിടെ നിലവിൽവന്നിട്ടുണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ എം പിയോട് ഞങ്ങള്ക്ക് കടപ്പാടുണ്ട് അത് അദ്ദേഹം ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ചെയ്തുതന്ന വലിയൊരു കാര്യങ്ങളാണെന്ന് കാര്യങ്ങളായിട്ട് പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളുകള് സ്കൂളുകളിൽ ഒത്തിരിയേറെ അസൗകര്യങ്ങളുണ്ടായിരുന്നു വളരെ നാട്ടിൻ പ്രദേശത്തൊക്കെയുള്ള സ്കൂളുകള് പോലെയൊന്നും വികസിച്ച ഒരു സ്കൂളുകളായിരുന്നില്ല എന്നാല് അദ്ദേഹത്തിലൂടെ ഞങ്ങളുടെ സ്കൂളുകളിലേക്കൊക്കെ സ്കൂളുകൾക്കൊക്കെ ഒത്തിരിയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്കൂളുകളെല്ലാ സ്മാർട്ട് ക്ലാസ്സുകളായിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളുകൾക്ക് സ്കൂളിലെല്ലാം പുതിയ കെട്ടിടങ്ങള് കെട്ടിടങ്ങള് അനുവദിച്ചിട്ടുണ്ട് അതിനുള്ള ഫണ്ടുകളെല്ലാം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ സ്കൂളുകളൊക്കെ ഇന്ന് നേരത്തേതിലുമെല്ലാം വളരെ പുരോഗമനത്തിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ എം പി മൂലം ഞങ്ങൾക്കിത്രയേറെ ഒരു നേട്ടങ്ങൾ നമ്മുടെ ഞങ്ങളുടെ ദേശത്തിന് വന്നുചേർന്നിട്ടുണ്ട് റോഡായിട്ടും സ്കൂളിൻ്റെ വികസനത്തിനായിട്ടുമെല്ലാം ഒത്തിരിയേറെ നേട്ടങ്ങള് വന്നുചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ മഴക്കാലങ്ങളിലെല്ലാം വരുന്ന ഓരോരോ പ്രകൃതി ക്ഷോഭങ്ങളിലൊക്കെ അദ്ദേഹം ഒക്കെ വരികയും അതിന് വേണ്ടിയൊക്കെയുള്ള സംഭാവനകള് അദ്ദേഹം ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് ജനങ്ങളെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറിനോട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനും എല്ലാം അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അപ്പോള് അതിനുവേണ്ടിയൊക്കെയുള്ള പ്രത്യേക പ്രത്യേക എന്താണ് പാക്കേജുകളുമൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് അങ്ങനെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രദേശത്തെ എം പി വളരെയേറെ ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ പ്രത്യേക രീതി ഇങ്ങനെ പ്രളയത്തിലും എല്ലാം അങ്ങനെയൊക്കെ ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ പ്രത്യേകമായിട്ട് വന്നുകാണുകയും പ്രത്യേകമായിട്ട് വന്നുകാണുകയും അവർക്ക് വേണ്ടതായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കയറ്റമായിട്ടുമൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം കോൺക്രീറ്റ് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അതിനുവേണ്ടി അദ്ദേഹം അതിനുവേണ്ടിയുള്ള ഫണ്ടുകളെല്ലാം അദ്ദേഹം നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ ഗ്രാമപ്രദേശങ്ങളില് ഒട്ടും ഒട്ടും റോഡ് സൗകര്യമില്ലാതിരുന്ന സ്ഥലങ്ങളിൽ പോലും ടൗണുമായിട്ട് ഒത്തിരിയേറെ അകലങ്ങളിൽ കിടക്കുന്ന സ്ഥലങ്ങളിൽ പോലും നല്ല റോഡ് മാർഗ്ഗം കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിലൂടെയെല്ലാം ജനങ്ങൾക്കും ഒത്തിരിയേറെ നേട്ടങ്ങള് കൈവരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തില് കുട്ടികളുടെ പഠന മേഖലകളിലും അതുപോലെ തന്നെ എങ്ങോട്ട് പോകുന്നതിനും എല്ലാം അവർക്ക് ഗതാഗത സൗകര്യങ്ങള് ഈ ജനങ്ങൾക്കെല്ലാം ഗതാഗതസൗകര്യം ഉണ്ടാക്കിത്തീർക്കുന്നതിന് ഞങ്ങളുടെ എം പി പരിശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിലെല്ലാം പ്രത്യേകമായിട്ടുള്ള ഓരോ സംവിധാനങ്ങള് ഒക്കെ അത് ചെയ്തിട്ടുണ്ട് അത് ഓരോ തവണയും ഓരോ സ്കൂളുകളിലെ വാർഷികങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴൊക്കെ അദ്ദേഹം വരികയും അദ്ദേഹം വരികയും ആ വാർഷികങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്യുകയും അപ്പോഴെല്ലാം സ്കൂളിന് വേണ്ടി ഒരു നിശ്ചിത തുക അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമൂലമെല്ലാം സ്കൂളുകൾക്ക് കൂടുതൽ കൂടുതൽ മെയിൻറനൻസ് ചെയ്യാനും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങള് കൂടുതൽ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നതിനുമെല്ലാം സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചും ഒരു എന്താണ് അശരണരായിട്ടുമൊക്കെ വലിയ രോഗാവസ്ഥയിലൊക്കെ കഴിയുന്നവർക്കൊക്കെ സഹായത്തിന് വേണ്ടിയൊക്കെ ചെല്ലുമ്പോഴെല്ലാം ഒട്ടും ഒന്നും മാറിനിൽക്കാതെ അതിനുവേണ്ടിയെല്ലാം അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ നാടിന് വേണ്ടിയും അതുപോലെ തന്നെ ദേശത്തിന് വേണ്ടിയും ഓരോ കുടുംബത്തിൻ്റെയും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പോലും പല കാര്യങ്ങളും പറയുമ്പോഴൊക്കെ ആണെങ്കിലും അദ്ദേഹം വളരെ നല്ല രീതിയില് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽപ്പോലും ഇന്നും പല സ്ഥലങ്ങളിലേക്കും റോഡ് ഗതാഗതം ഒന്നും അങ്ങനെ സുഗമമാക്കി ഉണ്ടായിട്ടില്ല ഒത്തിരി ഇനിയും സ്ഥലങ്ങളിലേക്കൊന്നും ഉണ്ടാകാത്ത ഇടങ്ങളുമൊക്കെയുണ്ട് അതും ഇനിയദ്ദേഹം അദ്ദേഹം ഇനിയും അതിന് വേണ്ടി പരിശ്രമിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇനിയദ്ദേഹം അതിനുവേണ്ടി ഞങ്ങൾക്കൊക്കെ സഹായത്തിനായിട്ട് ഇനിയും ഇങ്ങനെയൊന്നും റോഡ് ഒന്നും നല്ല രീതിയിൽ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയില് റോഡും കാര്യങ്ങളുമെല്ലാം ഉണ്ടാക്കിത്തരികയും എല്ലാം അദ്ദേഹം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തുതരികയും ചെയ്യുമെന്നാണ് ഈ ഇനി ഞങ്ങൾ ഇനിയും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ വിശ്വാസവും അത് ആ വിശ്വാസം അദ്ദേഹത്തിൽ അവരർപ്പിച്ചിട്ടുമുണ്ട് അപ്പം ഇത്രയും കാലം കൊണ്ട് ഈ ഞങ്ങളുടെ എം പി ഞങ്ങളുടെ നാടിനുവേണ്ടി ചെയ്തുതന്ന സേവനങ്ങള് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുതന്ന സേവനങ്ങളൊക്കെ വളരെയേറെ പ്രശംസാർഹമാണ്